ആ പറയൂ സാർ ആ അതെ അതെ നടന്നായിരുന്നു ആ സാർ പറയൂ സാർ ഞാൻ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വൈകീട്ട് ചായ കുടിക്കാൻ പോയ സമയത്തായിരുന്നു സംഭവം നടന്നിരുന്നത് ഒരു ബസ്സും ഒരു ബൈക്കും കൂടെ തമ്മിലാണ് ആക്സിഡൻറ്റ് ഓ സംഭവം സാറ് ബസ്സുകാരൻ്റെ ഭാഗത്താണ് ഞാൻ കണ്ടയിടത്ത് വെച്ച് എൻ്റെ അഭിപ്രായമാണ് ബസ്സുകാരൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബൈക്കുകാരൻ പുള്ളിക്കാരൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് കറക്റ്റ് ലോയൊക്കെ പാലിച്ചിട്ടാണ് വന്നത് ഒരു ബൈ റോഡ് വഴി ബൈക്കുകാരൻ ഇറങ്ങി വരുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ബസ്സുകാരൻ നമ്മൾ അവിടെ സ്റ്റോപ്പിൽ നിന്ന ആളെ എടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോവുമ്പോൾ ഒരു ബൈ റോഡ് ഉണ്ട് അവിടുന്ന് ആണ് ഈ ബൈക്കുകാരൻ ഇറങ്ങി വരുന്നത് ഇപ്പോൾ പുള്ളിക്കാരൻ ബൈക്കുകാരൻ ഹോണും അടിച്ച് ഒക്കെ ആണ് ഇറങ്ങി വന്നത് ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് കയറ്റി ബസ്സ് കൊണ്ടുവന്ന് കയറ്റി അപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ പാലോട് ബി എം സി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തോ ഹെഡിനൊക്കെ ഇൻജുറി ഉണ്ട് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ കയ്യൊഴിഞ്ഞ് നേരെ മെഡിക്കൽ കോളേജ് വിട്ടു പാലോട് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മരിച്ചെന്നാണ് കേൾക്കാൻ സാധിച്ചത് അല്ലല്ല പതുക്കെ ഇറങ്ങി അല്ലേ വന്നത് ബൈ റോഡ് ഇറങ്ങി വരുമ്പോൾ ഒരു നോർമൽ സ്പീഡിൽ ആയിരിക്കും ഇറങ്ങി വരുന്നത് ഒരു കോൺക്രീറ്റ് തടം ആണ് ബൈ റോഡ് അവിടെ ഉണ്ടെന്ന് കാണത്തില്ല കാരണം ഓ ബസ്സുകാരൻ്റെ ആ ഭാഗത്തുനിന്ന് നോക്കിയാൽ ആണെങ്കിലും പുള്ളിക്കാരന് കാണത്തില്ല കാരണം അത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇപ്പം അവിടെ ബൈക്കുകാരൻ ഇറങ്ങി വരുന്നത് കാണത്തില്ല ബൈക്കുകാരൻ റോഡിൽ എത്തിയതിന് ശേഷമേ കാണത്തുള്ളൂ ഓ പുള്ളി ആ അത് ഇതിന് മുമ്പും ഒരു കാർ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഒരു കാറ് ഈ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാൻ നേരത്ത് ഒരു പാലമാണ് ബ്രിട്ടീഷുകാർ പണ്ട് കെട്ടിയൊരു പാലമാണ് അപ്പം രാത്രി കാലങ്ങളിൽ ഈ സമയത്ത് ഈ ബസ്സുകാരൻ അന്ന് പുതിയതായിട്ട് ഈ റൂട്ട് ഓടാൻ വന്ന ബസ്സുകാരൻ ആയിരുന്നു അപ്പോൾ ആദ്യം ഇതിന് മുമ്പും തമിഴ്നാടുനിന്ന് ഈ തമിഴ്നാട് ബോർഡർ അല്ലേ ഇവിടെ അപ്പോൾ ഇത് വഴി വന്ന കാറും ഇതുപോല ആ പാലത്തിൻ്റ അടിയിൽ മറിഞ്ഞായിരുന്നു അങ്ങനെ ഇത് ധാരാളം ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള സ്ഥലമാണ് പഷേ ഇപ്പം ഇപ്പോൾ സാധാരണ മുമ്പുള്ള ആക്സിഡൻറ്റുകളെല്ലാം സ്വന്തം ആയിട്ട് ചെന്ന് ഈ പാലത്തിൻ്റെ അടിയിൽ വീഴുന്നതും അതുപോലെ ഈ ഓരോ പോസ്റ്റുകൾ ഇടിച്ച് ഇടുന്നതും ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വണ്ടിനെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റുന്നത് പുള്ളിക്കാരൻ ബൈക്കുകാരൻ ഇവിടുള്ള ആളാണ് എന്നും ജോലിക്ക് പോവുന്ന ഒരു എൽ ഡി ക്ലെർക്ക് ആണ്

സാറെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ വളവ് തിരിഞ്ഞ് കാണാനുള്ള ഒരു മിററും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും മുമ്പ് നടന്ന ആക്സിഡൻറ്റില് രണ്ട് വണ്ടികളും ഇടിച്ചിട്ടു അതിന് ശേഷം പിന്നെ പഞ്ചായത്തിൽ കൊടുത്തായിരുന്നു പിന്നെ ഈ റോഡ് വികസനത്തിന് ഈ ഇടക്ക് റോഡ് വികസനം നടന്നേനേ അപ്പോൾ അവരെ അവരെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് കൊണ്ട് വന്ന് അവർ വെച്ചില്ല പിന്നെ അത് മൈൻഡ് ആക്കാതെ പോയി അതെ അതെ ഫോണ് യൂസ് ചെയ്യുന്നത് ഞാൻ കറക്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഒര് ടോക്ക് ഇങ്ങനെയാണ് പോലീസ് അതായത് ബസ്സുകാരൻ ഫോണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് യാത്രക്കാരൻ പറഞ്ഞിട്ടുള്ളത് ആ ഓക്കെ പിന്നെ ശരി എന്നാൽ സാ